സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻതൂക്കം നടക്കുന്ന നാടാണ് ഇന്ത്യ മുപ്പത്തഞ്ച് ശതമാനം സംവരണം സ്ത്രീകൾക്കുണ്ട് അതു നേടിയെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണെന്ന് മാത്രം അവർ മുന്നിൽ മുൻനിരയിലേക്ക് വരുന്നില്ല മുൻനിരയിലേക്ക് വന്നാൽ അവർക്ക് ഉറപ്പായും സ്ഥാനങ്ങളുണ്ട് മാനങ്ങളുണ്ട് പിന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായ സ്ത്രീ എപ്പോഴും എവിടെയും അവരുടെ പ്രാധാന്യം കുറച്ച് കളയാനാവില്ല സ്ത്രീ അമ്മയാണ്

മകളെ സ്നേഹിക്കുന്നതും മകനെ സ്നേഹിക്കുന്നതും അതിന് തുല്യമായി ഒന്നുമില്ല പ്രകൃതി മനുഷ്യനെ സ്നേഹിക്കുന്നതുപോലെ അമ്മ എല്ലാവരെയും സ്നേഹിക്കുന്നു അമ്മ സ്നേഹം മാത്രമാണ് ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ സമൂഹത്തിന് പറ്റണം ചില കാപാലികന്മാർ സ്ത്രീകളോട് കാണിക്കുന്ന അതിക്രമങ്ങൾ വളരെ നിഷ്ക്രിയമാണ് അതിന് കാരണം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നും മറ്റു ഉപയോഗങ്ങളുമാണ് ആ മയക്കുമരുന്നുകളെ തടയുവാൻ വ്യഗ്രത കാണിച്ചാൽ ഉറപ്പായും സ്ത്രീകളുടെ മാനത്തിനും വില പറ വില കൊടുക്കേണ്ടി വരില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇടങ്ങൾ വേണം പക്ഷേ അതിലും ഉപരി അവർക്ക് നമ്മോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒപ്പമുണ്ടാകുമ്പോൾ ആ കരുതലും സംരക്ഷണവും ഓരോരുത്തരിലേക്കും ഷെയർ ചെയ്യപ്പെടും പ്രത്യേകമായ ഇടങ്ങളാകുമ്പോൾ അവർക്ക് ആ ഒരു പോസ്സസീവ്നെസ്സ് ഒരു ഒരുമിച്ച് ഉണ്ടല്ലോ അല്ലേ മറ്റുള്ളവർ എൻ്റെയൊപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത മാറിപ്പോകും അതിലുമുപരി എല്ലാവരും ഒരുമിച്ചാണ് എല്ലാവരും ഒന്നാണ് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്നു തിരിച്ചറിയുമ്പോൾ അതിലും വലിയ സന്തോഷവും അതിലും വലിയ കെയറും ഒന്നും ഒന്നിനും മാറ്റുരയ്ക്കാൻ പറ്റുന്നതല്ല അതിനാണ് അതിനായി പ്രത്യേകം മാറ്റി വെക്കാനോ പ്രത്യേകം ഇരിപ്പിടങ്ങൾ സൃഷ്ടിക്കാനോ ശ്രമിച്ചാൽ അത് ഒന്നും കൂടെ അകൽച്ചയിലേക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അതല്ല എല്ലാവർക്കും ഒരുമയായി ഒരുമപോലെ സ്വന്തം സഹോദരനായി സഹോദരിയായി അമ്മയായി അങ്ങനെ കാണുമ്പോൾ അതാണ് ഏറ്റവും നല്ല പ്രയോജനകമായ കാര്യം സ്ത്രീകൾക്ക് ജോലിയുടെ കാര്യത്തിൽ മറ്റു ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ എല്ലാം അവർക്കൊരു മുൻഗണന വേണം അതിൽ ഞാനെതിരല്ല പക്ഷെ ഒരുമിച്ചാണ് എപ്പോഴും എപ്പോഴും പ്രവർത്തിക്കുവാനും